പരമ്പരാഗത കളികൾക്ക് വളരെയധികം മാറ്റങ്ങളാണ് കാലക്രമേണ ഉണ്ടായിരിക്കുന്നത് പാരമ്പരാഗതമായിട്ട് നമ്മള് കളിച്ചു വന്ന കളികൾ ഒന്നും തന്നെ ഇപ്പോള് നമുക്ക് കാണാൻ ഇല്ല ഇപ്പോഴുള്ള കുട്ടികൾക്ക് പുതിയ തലമുറകൾക്ക് പാരമ്പരാഗതമായിട്ടുള്ള കളികൾ ഒന്നും തന്നെ അറിയില്ല അവർക്ക് പുതിയ ഗേമുകളും ഓൺലൈൻ ഗേമുകളും ഓഫ്ലൈൻ ഗേമുകളൊക്കെയാണ് അവർക്കറിയാവുന്നത് അതുപോലെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഫോണിലൂടെയൊക്കെയുള്ള കളികളാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കറിയാവുന്നവർക്ക് പഴയ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിലുള്ള കളികളും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഇല്ല എന്തിൻ്റെ കാല ആ കാലക്രമേണ പരമ്പരാഗതമായിട്ടുള്ള കളികൾക്ക് വളരെ വലിയ മാറ്റമാണുണ്ടായത് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടേയിൽ നിന്ന് ആ കളികള് പലതും മറഞ്ഞു പോയി അല്ലെങ്കിൽ മാഞ്ഞു പോയി എന്നു വേണം പറയാനായിട്ട് എല്ലാവരും മറന്നു കഴിയും പരമ്പരാഗതമായിട്ടുള്ള കളികളെല്ലാവരും തന്നെ മറന്നു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ പ്പ ചില ഇടങ്ങളിൽ മാത്രമാണ് അപൂർവം ചില ഇടങ്ങളിൽ മാത്രമാണ് നമുക്കിപ്പോള് ഈ തരത്തിലുള്ള കളികള് കാണാൻ പറ്റുന്നത് അല്ലാതെ എങ്ങും തന്നെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നില്ല